ആണോ നിവിൻ എവിടെ പോവുകയാണ് ആണോ ആ ഏത് ആശുപത്രിയിലാണ് ആണോ ആ ഹാ ആണോ ആ മൂന്നു ദിവസം തരാം നിവി അതൊന്നും കുഴപ്പമില്ല കാരണം നമ്മുടെ ജോലിയുടെ അല്ലെങ്കിൽ ഓഫീസിന്റെ കോണ്ട്രാക്റ്റ് അനുസരിച്ചു നമുക്ക് ഇങ്ങനെ അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ലീവ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പം നിവിന് ഉറപ്പായിട്ടും ആ ലീവ് ആ ലീവ് ഉറപ്പായിട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യും പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മൾ നിവിന് പെന്റിങ്ങ് വച്ചിരിക്കുന്ന ജോലി ഉണ്ടെങ്കിൽ അത് തീര്ത്തിട്ടെ നമുക്ക് ലീവ് തരാൻ പറ്റുകയുള്ളൂ കാരണം നമുക്ക് ഈ മാസം അവസാനം ആ തീര്ത്തിട്ട് നിവിന് ലീവ് എടുക്കാം കുഴപ്പമൊന്നുമില്ല നിവിന് അതിന് അനുസരിച്ചു നമ്മൾ ലീവ് മൂന്നൂസോ അല്ലെങ്കിൽ തരുന്നതായിരിക്കും പിന്നെ നിവിന് എന്നെങ്കിലും തിരിച്ചു വരുമ്പം നിവിൻ ആ അത് ഇല്ലാത്ത ദിവസത്തെ അല്ല ഇന്ന് വര്ക്ക് അതിലൊക്കെ വച്ചു ഷെയർ ചെയ്തു അങ്ങ് ചെയ്തു തീര്ത്താൽ മതി അങ്ങനെ അങ്ങ് ചെയ്താൽ മതി ആ ആ നിവിന് എത്ര ദിവസത്തെ ലീവ് ആണ് വേണ്ടത് ആണോ ഭാര്യയെ ചെക്കപ്പിനു കൊണ്ടു പോകാനാണോ അതോ ഭാര്യ പ്രസവിച്ചോ എങ്ങനെയാണ് ആണല്ലേ ആ ആണല്ലേ ഓക്കെ ഓക്കെ ആ ചെക്കപ്പ് കഴിഞ്ഞിട്ട് വേണമായിരിക്കും ഡേറ്റ് എടുക്കാന് അല്ലേ ആ ആണോ ആ ആ ആ ആ ഓ ഓക്കെ ഓക്കെ ഓക്കെ ആണല്ലേ ഒക്കെ ഓക്കെ നിവിന് അതൊന്നും കുഴപ്പമില്ല നിവിന് ഉറപ്പായിട്ടും ലീവ് തന്നിരിക്കും അപ്പം എന്തായാലും നിവിൻ എന്റെ ഓഫീസിൽ അടുത്ത ദിവസം വന്നിട്ട് പറഞ്ഞാൽ മതി നമുക്ക് അതിനുള്ള നടപടി സ്വീകരിക്കാം ഓക്കെ ആ ഓഫീസിൽ വന്നു പറഞ്ഞാൽ മതി അടുത്ത ദിവസം എന്നെ വന്നു കണ്ടാൽ മതി ഇല്ല ഇല്ല വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല വേറെ വിഷയങ്ങളൊന്നും ഉണ്ടാകില്ല ഇല്ല ഇല്ല ഉണ്ടാകത്തൊന്നുമില്ല അതിന് ആ ലീവ് അതിന് അനുസരിച്ചു നമ്മൾ നിവിന്റെ അതിന് അനുസരിച്ചു നമ്മൾ അത് മാര്ക്ക് ചെയ്തോളാം ആ ലീവിന്റെ അതിന് അനുസരിച്ചു അത് കുഴപ്പമില്ല വേറെ സാലറിക്കോ ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇല്ല നിവിന് നമ്മുടെ ഓഫീസ് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല ഇല്ല കുഴപ്പമൊന്നുമില്ല ആ ഓക്കെ ഓക്കെ നിവിന് റിപ്പോട്ട് ചെയ്താൽ മതി സമയത്തെല്ലാം റിപ്പോട്ട് ചെയ്താൽ മതി വിഷയമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ഓക്കെ എന്നാൽ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ശരി ഓക്കെ നിവിന് ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ എന്നാൽ